ഞാൻ ഒരു എൻ്റെ പേര് സ്റ്റെഫീന എന്നാണേ ഇത് ചെത്തിപ്പുഴയിലെ സെൻറ് തോമസ് ഹോസ്പിറ്റൽ അല്ലേ ആ എൻ്റെ പേര് എൻ്റെ പേര് സ്റ്റെഫീന എനിക്ക് അറുപത് വയസ്സായി ആ കുറേ ദിവസം ആ കുറേ നേരമായി എനിക്ക് ഒരു ചെസ്റ്റ് പെയിൻ പോലെ തോന്നുന്നു മാഡം

അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറായി ഞാൻ സാധാരണ ഗ്യാസ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം വേദന കൂടി കൂടി വരുന്നത് പോലെ എനിക്കൊരു തോന്നൽ ഇത് കണ്ടിന്യൂസ് നിൽക്കുവാണ് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട് കൂടെ ഒരു കൊച്ചു മോളേ ഉള്ളൂ കൊണ്ടുവരാൻ ആളില്ല ഇവിടെയാണെങ്കിൽ ഇവിടെ ചെറിയൊരു വില്ലേജ് ആണ് വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓക്കെ ഓ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു അല്ലാതെ എൻ്റെ സ്വന്തം പപ്പയ്ക്ക് അമ്മ അമ്മയ്ക്കങ്ങനെ ആർക്കും ഇല്ലായിരുന്നു ആ ഇതാദ്യമായിട്ടാണ് ഇതാദ്യമായിട്ടാണ്

അങ്ങനെ ഇല്ല എനിക്ക് ഈ ബാക്കിൾ ഇങ്ങനെ പുറം വേദന എടു പുറം വേദന എടുക്കുമ്പോൾ തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് നല്ല വേദന ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഗ്യാസിൻ്റെ പെയിൻ പോലെ തോന്നുന്നില്ല ഞാൻ അങ്ങനെ നോക്കി നോക്കിയില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ

ആ അവർ മാത്രമേ ഉള്ളൂ ഇപ്പം കൊച്ചിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് വരാനും ബുദ്ധിമുട്ടുണ്ട് അടുത്തൊന്നും ഇല്ല എനിക്ക് എഴുന്നേറ്റ് പോവാനോ ആരെയും വിളിക്കാനും പറ്റുന്നില്ല എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല ഇതും കൊച്ചാണ് ചെയ്ത് തന്നത് ഒരു ഇരുപത് മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു മാഡം അവിടുന്ന് വരാൻ നിങ്ങൾ ഒരു വരുവാണെങ്കിൽ കൊള്ളാമായിരിക്കും പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ആ വേണമായിരുന്നു കാരണം കൊച്ചിനൊന്നും അറിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കൊളസ്ട്രോളിന് മരുന്ന് എടുക്കുന്നുണ്ട് പിന്നെ പാരസെറ്റമോൾ ഗുളിക എനിക്ക് മെഡിസിൻ എനിക്ക് അലർജി ആണ് അങ്ങനെ ഇല്ല ഷുഗർ ഒന്നും എനിക്കില്ല വീട്ടിൽ പക്ഷേ പാ ഹൈപ്പർടെൻഷൻ ഇല്ല കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക എടുക്കുന്ന ആളാണ് ഞാൻ വേറെ പ്രത്യേകിച്ച് ഗുളിക ഒന്നും എടുക്കുന്നില്ല പിന്നെ പറഞ്ഞത് പോലെ പാരസെറ്റമോൾ മാത്രം എനിക്ക് അലർജി ഉള്ളൂ അല്ലാതെ ഇതുവരെ ഇതുവരെ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മ ഇല്ല അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പെയിൻ വരുന്നതും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കിടക്കം നേരത്തേ തന്നെ കിടക്കുവാണ്

ഞങ്ങളെ കയ്യിൽ മറ്റേ ഫോൺ ഇല്ല ടച്ച് ഫോൺ ഒന്നും ഇല്ല ഇത് സാധാരണ ഫോൺ ആണ് ഇത് പൂവം എന്ന് പറയുന്ന ഒരു കൊച്ച് ഗ്രാമമാണ് അപ്പോൾ അവിടുന്ന് അവിടെ വരുന്ന വഴിക്കൊരു അമ്പലം ഉണ്ട് പിന്നെ ഇവിടെ പൂവം പള്ളി എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞ് തരും ഞാൻ എന്തെങ്കിലും ചെയ്യണോ അത് അത്യാവശ്യമായിട്ട് ആ ശരി താങ്ക് യു ഓ ആ ശരി ശരി